എനിക്ക് കേരള സാക്ഷരതേനെ കുറിച്ചായിരുന്നു കൂടുതൽ അറിയാനായിട്ടുള്ള ആഗ്രഹം ആ എജുക്കേഷൻ ലിറ്ററസിന്ന് ഞാൻ വയനാട്ടിൽ നിന്ന്

എജുക്കേഷൻ കറക്റ്റായിട്ടുള്ള ലെവൽലുള്ള ഗവൺമെൻറ്റ് ഓറ് സി ബി എസ് ഇ ഐ എസ് ഇ സി ഈ സിലബസിലൊക്കെയുള്ള എജുക്കേഷനും ഇവ ഇത് തമ്മിലുള്ള ഡിഫ്റൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്

ആ ഓക്കെ ആ ഓക്കെ

ആ

ഡിഫ്റെൻസ് ഒന്നും ഇല്ല ആ ഇല്ല ആ ഓക്കെ താങ്ക് യൂ മേം